ആ വരൂ ആ വരൂ ആ വരു വരു ഇരിക്കൂ ഇരിക്കൂ ഓക്കേ എവിടുന്നാണ് വരുന്നത് എന്താ പേരെന്താണ്

മ്മ് ഈ വർക്ക് എന്താണെന്നൊക്കെ അറിയില്ലേ അതെയതെയതേ അപ്പോൾ ഏതുവരെ പഠിച്ചു കോളിഫിക്കേഷനൊക്കെ എങ്ങനെയാണ് ഡിഗ്രി ബികോം മാത്രമെ പഠിച്ചിട്ടുള്ളോ അതോ എംകോമില്ലേക്ക് പോയോ എംകോം പഠിച്ചിട്ടുണ്ടായിരുന്നോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഓ ആ ഓക്കേ ഒക്കെ അപ്പോൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ബികോം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് കാലിക്കറ്റ് ആ അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്കും പെർസെൻ്റെജൊക്കെ എങ്ങനെയുണ്ടായിരുന്നു ആ അപ്പോൾ പിന്നെ വലിയ തരക്കേടില്ലാത്ത മാർക്കും കാര്യങ്ങളുമൊക്കെയാണല്ലേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ മാർക്ക് കിട്ടുകയെന്നു പറഞ്ഞാൽ കുറച്ചു ഇതാണലോ ബുദ്ധിമുട്ടാണല്ലോ ഓക്കേ അത്കഴിഞ്ഞു എംകോം എവിടെയാണ് ചെയ്യണേ ചെയ്തിട്ടുണ്ടായിരുന്നത് ഭാരതിയാർ അല്ലേ ഓക്കേ എപ്പോൾ ഏതു ഇയറിലായിരുന്നു പാസ്സ്ഔട്ടായത് ല്ലേ ഒക്കെ ഒക്കെ അതുകഴിഞ്ഞിട്ട് പിന്നെ വേറെന്തെങ്കിലും അക്കൗണ്ടഡ് ബന്ധപ്പെട്ട വല്ല ടാല്ലിയോ കമ്പ്യൂട്ടർ കോഴ്സോ അങ്ങനെയെന്തെങ്കിലും എടുത്തിട്ടുണ്ടായിരുന്നോ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ കുഴപ്പമില്ല ഓക്കേ പിന്നെ എവിടെയൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് എക്സ്പീരിയൻസ് വല്ലതും വേറെയെവിടെയെങ്കിലും പുറത്തോ എവിടേലും പോയി വർക്ക് ചെയ്യുക അങ്ങനെയെന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ അവിടെയും ആ ഇതേപോലെ സെയിം വർക്കായിരുന്നോ അവിടെ എന്തൊക്കെയാ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഓക്കേ എവിടെ ഇവിടെ ചെന്നൈയിലോ ബാംഗ്ലൂരല്ലേ ഓക്കേ ബാംഗ്ലൂർ എത്ര വർഷം വർക്ക് ചെയ്തുന്നു ഒരു വർഷമോ രണ്ടുകൊല്ലം ബാംഗ്ലൂർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ അവിടേയും അക്കൗണ്ട്സായിട്ടു ബന്ധപ്പെട്ട വർക്ക് തന്നെയാണോ ഓക്കേ പിന്നെ വേറെയെവിടെയാ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ചെന്നൈയിലും ബാംഗ്ലൂരുമാണ് മെയ്നായിട്ടു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ അക്കൗണ്ട്സായിട്ടു ഓക്കേ ഇപ്പോൾ കോയമ്പത്തൂർ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ ഈയിടക്ക് അവിടെ എന്തായിരുന്നു വർക്ക് ഇതു തന്നെയാണോ ഒക്കെ ഒക്കെ അവിടേയും അക്കൗണ്ട്സ് തന്നെയാരുന്നുല്ലേ അപ്പോൾ വർക്ക് പരിചയമുണ്ട് നല്ല എക്സ്സ്പീരിയൻസുമുണ്ടല്ലേ ഓക്കേ അവിടെയൊക്കെ എങ്ങനെയാ സാലറിയൊക്കെ എങ്ങനെയായിരുന്നു കിട്ടീട്ടുണ്ടായിരുന്നത് എങ്ങനെയായിരുന്നു വർക്കിംഗ് ടൈമൊക്കെ ഓക്കേ അവിടെ നിന്ന് വർക്ക് ചെയ്താരുന്നു അപ്പോൾ ഫുഡും അക്കോമഡേഷന്നൊക്കെ ഉണ്ടായിരുന്നു അല്ലേ സാലറി തന്നിട്ടുണ്ടായിരുന്നു അല്ലെ ഒക്കെ ഒക്കെ അപ്പോൾ അപ്പോൾ കുഴപ്പമില്ല നമ്മളിപ്പോൾ വരുന്നത് ഇവിടെ അക്കൗണ്ട്സിൽ തന്നെയാണ് വർക്ക് വരുന്നത് അപ്പോൾ രാവിലെ ഒമ്പത് ടു നാല് നാലു പി എം ആ അതാണ് വർക്കിംഗ് ടൈം വരുന്നത് നാലു നാലര അതിനുള്ളിൽ വർക്കിംഗ് ടൈം കഴിയും പിന്നെ നിങ്ങൾക്ക് ഇവിടെ പാലക്കാട് തന്നെയായതുകൊണ്ട് വീട്ടിൽ പോയി വരാവുന്നതല്ലേയുള്ളൂ അല്ലെങ്കിൽ ഇവിടെ താമസിക്കുകയാണെങ്കിൽ താമസിക്കാം വീട്ടിൽപോയി വരാവുന്ന ദൂരം ആയതുകൊണ്ട് പോയിവരുന്നതായിരിക്കും ബെറ്റർ പിന്നെ നമ്മളിവിടെ ഒരു നാപ്പത് രൂപയാണ് സാലറി കണക്കാക്കുന്നത് ഇപ്പോൾ അതില് നമുക്ക് ഇപ്പോൾ എക്സ്പിരിയൻസുള്ളതു കൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇത്രെയൊക്കെ തരാൻപറ്റു ഇത്രെയൊക്കെ തരാം മാക്സിമം പിന്നെ നിങ്ങളുടെ വർക്കും കാര്യങ്ങളുമിനി പോവുന്നതനുസരിച്ചിട്ടു സാലറിയിൽ ഇമ്പ്രൂവ്മെന്റുണ്ടാകും അപ്പോൾ അതില് പിന്നെ കാര്യമങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ സാധാ കമ്പനിയിലൊക്കെ പോലെ പി എഫ് കാര്യങ്ങളൊക്കെയുണ്ടാവും ഇതൊക്കെയാണ് നമ്മുടെ മെയ്നായിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെ റെസ്യുമ് ഇതിപ്പോൾ അപ്ഡേറ്റഡ് റെസ്യുമാണോ കൊണ്ടുവന്നിരിക്കുന്നത് ആ ഓക്കേ അത് തന്നോളൂ ഒരു രണ്ടു റെസുമിൻ്റെ കോപ്പി തന്നോളൂ പിന്നെ അതേപോലെ സർട്ടിഫിക്കറ്റിൻ്റെയൊക്കെ ഒറിജിനൽ സർട്ടിഫിക്കറ്റിൻ്റെയോക്കെ ഫോട്ടോകോപ്പി അതേപോലെ പിന്നെ ആധാർകാർഡ് പാൻ കാർഡ് പിന്നെ ബാങ്ക് അക്കൗണ്ട് പാസ്സ്ബുക്കിൻ്റെ കോപ്പി ഇതൊക്കെ തന്നിട്ട് പൊക്കോളു ഞാനെന്തായാലും വിളിക്കാം ഓക്കേ ഓക്കേ താങ്ക്യൂ